എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യമെന്ന് പറയുമ്പം നമുക്ക് അത്രേയും പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഇരിക്കുന്നതാണ് ഏറ്റവും സെയ്ഫെസ്റ്റ് ആൻറ് ഹാപ്പിയിയെസ്റ്റ് മൊമൻറ്റ്ന്ന് പറയുന്നത് അവരുടെ കൂടെയിരിക്കുക അവരുടെകൂടെ ടൈം സ്പെൻ്റെ ചെയ്യുക അവർ കുറേ നേരം സംസാരിക്കുക അതൊക്കെ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു സാന്തോഷം നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് എവിടെ പോയാലും അത് നമുക്ക് കിട്ടില്ല അതുപോലെതന്നെ അവരെ സന്തോഷിപ്പിക്കുക നമ്മള് എന്തേലുമൊക്കെ പറഞ്ഞിട്ടും അല്ലെങ്കിൽ എന്തേലുമൊക്കെ നൽകി അവരേ സന്തോഷിപ്പികുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ആ സന്തോഷം അവരുടെ പുഞ്ചിരീ അത് കാണുന്നത് തന്നെയാണെൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു സർപ്രൈസൊക്കെ കൊടുക്കുക വീട്ടുകാർക്കാണെങ്കിലൂം ഭക്ഷ്ണംവെച്ച് നമ്മള് നല്ല രീതിയില് ഫുഡ്ഡോക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്തവരുടെ ഭാഗത്തുണ്ടാകുന്ന നല്ല റെസ്പോൺസ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുണ്ടാവുന്ന സന്തോഷം അതൊക്കെ കാണുമ്പോൾ ഞാന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ് അവരുടെ കൂടെ അത് എൻ്റെ ഇ ഇൻ എനിക്ക് പ്രിയപ്പെട്ടവരുടെ കൂടെ ടൈം സ്പെൻറ്റ് ചെയ്യുന്നത് എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണെങ്കിലും അവരുടെ കൂടെ ടൈം സ്പെൻറ്റ് ചെയ്യുന്നത് തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതല് സന്തോഷിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് വേറെ സന്തോഷമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല